ഹലോ ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ടാണോ ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ടാണോ ആ എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചത് ഇന്ന് വല്ല ഓഫർ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഉണ്ടല്ലെ ആ എനിക്ക് കുറച്ച് അരി പയറ് പച്ചക്കറി അങ്ങനെ കുറച്ച് സാധന വേണമായിരുന്നു ആ അപ്പം അതിന് അങ്ങനെ എന്തേലും ഒന്ന് ഓഫർ ഒക്കെ ഉണ്ടോ എന്നറിയാൻ ആയിട്ട് ഒക്കെ ആയിട്ട് വിളിച്ചതായിരുന്നു

എനിക്ക് അരി വേണം ചെറുപയർ വൻപയർ പിന്നേ വേണ്ടത് പിന്നെ അലക്ക് സോപ്പ് കുളി സോപ്പ് അങ്ങനെ ഉള്ള സാധനങ്ങൾ പിന്നെ ലോഷനുകൾ ഉണ്ടല്ലൊ എടക്ക് ക്ലീനിങ്ങിന് ഉള്ള അങ്ങനെ ഉള്ള കുറച്ച് സാധനങ്ങളും വേണമായിരുന്നു ആ നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടുന്ന കുറച്ച് വേറെ വേണ്ടുന്നത് ഇത്രയും സാധനങ്ങൾ മതി ക്ലീനിങ്ങിന് വേണ്ടുന്ന സാധനങ്ങൾ ലോഷനുകൾ അങ്ങനെ ഉള്ള സാധനം ഹാ അങ്ങനെ ഉള്ള സാധനങ്ങൾ ഒക്കെ മതി ലോഷൻ നമുക്ക് ഏതൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം ഉണ്ടല്ലെ നമ്മൾ സാധാരണ അങ്ങനെ ഇത് എന്നൊന്നും ഇല്ല നമ്മൾ എല്ലാ ഐറ്റം ഉപയോഗിക്കാറുണ്ട് ഉണ്ട് ഉണ്ട് എടുത്ത് വെക്കാമായിരുന്നല്ലേ ആ ഓക്കെ ഓക്കെ ഈ ഞങ്ങൾ ആ തരും ആ ഓക്കെ

അഞ്ച് കിലോ ഉണ്ടല്ലേ

ആ ഓക്കെ ഓക്കെ ആ ഞാനായിരിക്കും വരുന്നത് ആ എന്തോ ഞാൻ ഞാൻ വൈകിട്ടത്തേക്ക് എത്തുകയുള്ളു ഷോപ്പിൽ

വേറെ എന്തിനൊക്കായാണ് വേറെ എന്തിനൊക്കായാണ് ഓഫർ ഉള്ളത് ആ ഓക്കെ ഓഫർ ഉള്ളൂ അല്ലെ ആ തരുന്നുണ്ട് അല്ലെ ആ ഓക്കെ ഓക്കെ ഉണ്ട് ആ ഓക്കെ

ആ ആ ആ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ വന്നേക്കാം നേരത്തേ തന്നെ ഞാൻ വന്നേക്കാം ആ വന്നേക്കാം വന്നേക്കാം ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഉണ്ടല്ലെ ആ ഉറപ്പായും ഉറപ്പായും ഉറപ്പായും വിട്ടേക്കാം ഉറപ്പായും വിട്ടേക്കാം ആ ഓക്കെ ഓക്കെ ഉറപ്പായും വിട്ടേക്കാം

ആ ആ നല്ലതാണ് അല്ലെ ആ ഓക്കെ ഓക്കെ അങ്ങനെ ഉണ്ടേൽ ഞാൻ ബുധനാഴ്ച്ച വന്നേക്കാം ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ ശരി ആയിക്കോട്ടെ